നെയ്ത്തും തുന്നലും എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് നല്ലതായിട്ട് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് നല്ല അനുഭവമാണെനിക്ക് അത് സ്റ്റിച്ച് ചെയ്യും ഡ്രസ്സ് ഒക്കെ തയ്ച്ചു കൊടുക്കും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ നമ്മുടെ ഇഷ്ടത്തിന് തയ്ച്ചെടുക്കാൻ നമുക്ക് പറ്റും ഇത് തൊഴിലായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ കൊണ്ട് വരുന്ന ചിലരൊക്കെ കൊണ്ട് വരുന്നത് തയ്ച്ച് തയ്ച്ച് കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ച് ലാഭം ഒക്കെ ലഭിക്കാറുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ തയ്ക്കുകയും കാണുകയും ഒക്കെ ചെയ്യാൻ നല്ലൊരു സന്തോഷം ലഭിക്കാറുണ്ട് പിന്നെ നൂലുകളുമായി നിരന്തരം പണിയെടുക്കുന്നവർ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല അടുപ്പിച്ചിരുന്ന് കുറേ വർക്ക് ചെയ്യുമ്പഴത്തേക്കിനും നമുക്ക് പിടലി വേദന ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ വലിയ സ്ഥിരമായിട്ട് ഇതൊരു ജോലിയായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തയ്ച്ച് എടുക്കും എംബ്രോയ്ഡറി ആയിട്ട് തയ്ക്കും ഡ്രെസ്സുകൾ നമ്മൾ ചുരിദാറ് നൈറ്റി അങ്ങനെയുള്ള വീട്ടിൽ ഇടുന്ന ഡ്രെസ്സുകൾ ലേഡീസിന് വേണ്ട ഡ്രെസ്സുകളൊക്കെ നമ്മൾ തയ്ക്കാറുണ്ട് അത് നമുക്ക് നല്ല തുണികളൊക്കെ കാണുകയും അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ച് എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ പിന്നെ നമ്മൾ ആർക്കെങ്കിലും തയ്ച്ച് കൊടുക്കുമ്പോൾ അവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് നല്ല രീതിയിലെടുത്ത് നമുക്ക് നല്ല സന്തോഷം തോന്നും പിന്നെ എന്തൊരു വ്യത്യാസപ്പെടുത്താനുണ്ടെങ്കിൽ അവർ പറയും അപ്പം നമ്മൾ അത് ചെയ്ത് കൊടുക്കും ആൾക്കാരുമായിട്ട് ഒരു കോൺടാക്ട് വരുന്നതിനും അവരുമായിട്ട് കൂടുതൽ സമയം ബന്ധപ്പെടുന്നതിനും സഹായിച്ചിരുന്നു നമ്മുടെ മാനസിക ഉല്ലാസത്തിന് നല്ല സഹായിച്ചിട്ടുണ്ട് നമുക്ക് കൃത്യമായ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് അങ്ങനെ ശരീരത്തിൽ ശാരീരിക വേദന അങ്ങനെ ഒന്നും ഇല്ല പിന്നെ എംബ്രോഡറി എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങനെ നല്ല പൂക്കളും ഇതൊക്കെ തയ്ക്കുന്നത് തയ്ക്കുന്നുണ്ട് അത് കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആൾക്കാർ ആൾക്കാർ മറ്റുള്ളവർ ചെയ്യാത്ത പോലെ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ നമ്മൾ നമ്മൾ തന്നെ കണ്ട് പിടിച്ച് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ട് അങ്ങനെ മറ്റുള്ളവരിൽനിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ നല്ല രീതിയിൽ നമ്മൾ നമുക്ക് ഡ്രെസ്സുകളൊക്കെ ഇടാൻ പറ്റും പിന്നെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പിള്ളേരെയും പഠിപ്പിക്കാം അവർക്കും ഒരു ടൈംപാസ്സ് ആകും പഠനത്തോടൊപ്പം അവർക്ക് ഒരു ടൈംപാസും ആകും നല്ലതുപോലെ എല്ലാം തയ്ച്ചിടാനും പറ്റും കൂടുതൽ കോളേജുകളിലൊക്കെ നന്നായിട്ട് പോവാൻ പറ്റും അത് വളരെ നല്ല ആയിട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മുടെ സിസ്റ്റേഴ്സും അതിനെ കോൺവെൻ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് അവർ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് സ്റ്റിച്ചിങ്ങ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പകുതി വിലക്ക് പകുതി ചാർജിന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെയുണ്ട് ചില ക്രിസ്തീയ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലൊക്കെ പകുതി വിലക്ക് പഠിപ്പിക്കുന്നും ഉണ്ട് അല്ലെങ്കിൽപിന്നെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പിള്ളേരും ഓട്ടോമാറ്റിക്കലി അങ്ങ് പഠിച്ചോളും എല്ലാം കൊണ്ടും നല്ലൊരു തൊഴിലാണ് നമുക്ക് സന്തോഷം തരുന്നതുമാണ് കുറച്ച് വരുമാനം ലഭിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് ഇഷ്ടത്തിലുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് തയ്ച്ച് നമ്മുടെ പാകത്തിന് ഇടുകയും ചെയ്യാം നമ്മുടെ പാകത്തിലുള്ള ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി ലഭിക്കുകയും ചെയ്യും അതൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്